ആ ഞാൻ ഇങ്ങനെ ടൂർ വന്നതായിരുന്നേ അപ്പം എനിക്ക് ടു വീലർ ആവശ്യമുണ്ട് അപ്പം നിങ്ങളെ വിളിച്ചാൽ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഒരു അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഐ ഡി കാർഡ് ആ

ആ പറ മറ്റേ ആണ് മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ആ ആ വേറെ എണ്ണ തരുമോ എണ്ണയൊക്കെ നിങ്ങൾ തന്നെ അടിച്ചുതരുമോ അടിക്കും ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് അഞ്ച് ദിവസത്തിനേക്കാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനുമുമ്പ് നമുക്ക് നിർത്തണം തോന്നിയെങ്കിൽ കൊണ്ടുത്തന്നൂടെ ആ ഓക്കെ അപ്പം നാല് ദിവസത്തെ വാടക മതിയാവും അല്ലേ

ആ അപ്പം അതിൽ നിന്ന് കുറയ്ക്കും അല്ലേ

ആ പിന്നെ ഇത് സ്ഥലം ലൊക്കേഷൻ എവിടെയായിരുന്നു ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നതായിരുന്നേ അപ്പോൾ മാനന്തവാടിയിൽ നിന്നായിരിക്കുമല്ലേ